അതെ

അതെയതെ

ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നാളെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ മെയിൻ ഓഫീസിലോട്ട് വരുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി അവിടത്തെ സ്റ്റാഫിന് നിങ്ങളൊരാപ്ലിക്കേഷൻ കൊടുക്കുക എന്നിട്ടവരിപ്പം ഒരു എന്തേലും ആവശ്യം പറയുന്നെങ്കിൽ ഐ ഡി പ്രൂഫായിട്ട് പാൻ കാഡും ആധാറും പിന്നെ ഒരു റേഷൻ കാഡ് ചിലപ്പം വേണ്ടിവരും ഇൻകം സർട്ടിഫിക്ക ഇൻകമിൻ്റെ ഇത് അറിയാനായിട്ട് അത് കൊണ്ട് വരണം പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ ഇപ്പം പുതിയതായിട്ടുള്ള സ്ഥലത്തിന്റേം ഇപ്പോൾ ലാസ്റ്റായിട്ട് ടാക്സ്ടച്ചതിൻ്റെ ഒരു ഡോക്യൂമെൻസും കൊണ്ടു വരണം വേണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാം എന്നിട്ടൊരു എനിക്ക് തോന്നുന്നൊരു ഒന്ന് രണ്ട് ആഴ്ച്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത് ശരിയാകും അവിടുന്ന് ഇത് കിട്ടിയാലെ എനിക്കവിടെ സ്ഥലം വന്ന് നോക്കാൻ പറ്റത്തുള്ളു ഇതിപ്പം രണ്ട് മാസം ആകുവോ ഇപ്പോൾ ഇത് രണ്ട് മാസാവുവൊ ആറ് മാസം ആവുവോന്നുള്ളതെൻ്റെ അറിവിലല്ലല്ലൊ അപ്പം ഞാനിവിടത്തെ ലൈൻമാനാ അല്ലാതെ അവിടത്തെ എഞ്ചിനീയറല്ല അപ്പം നിങ്ങൾ പോയി അന്വേഷിക്കു എന്നിട്ട് എന്താന്ന് വെച്ചാൽ ആയിട്ട് ഇപ്പം എ ഇപ്പ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ നിങ്ങളേപ്പോലൊരു ആയിരക്കണക്കിനാൾക്കാർ ദിവസോം അപേക്ഷയും കൊണ്ട് വരാറുണ്ട് അപ്പം എല്ലാവരുടെയും ഒരു ഇതായിട്ട് എനിക്കെന്തേലും ചെയ്യാൻ പറ്റു അവിടുന്ന് പറയട്ടെ അപ്പം ഞാൻ വന്ന് നോക്കുന്നുണ്ട് അപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങൾ നാളെ രാവിലെ വന്ന് നോക്ക് അതെ അതെ അതെ മെയിൻ ഓഫീസവടെത്തന്നെയാണ് അങ്ങോട്ട് വന്ന് നോക്കു ശരി ആ മതി മതി ശരി എന്നാൽ